ചേട്ടാ നമസ്കാരം ഞാനേ പറളീന്നാ വിളിയ്ക്കുന്നത് നേരത്തെ ഞാൻ അവിടെ വിളിച്ച് ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഫുഡ് വരുകയൊക്കെ ചെയ്തു സംഭവം എന്താ പറയുക ഫുഡ് ഒന്നും പറയുന്നെന്ന് തോന്നരുത് ഭയങ്കര മോശം ആണ് കേട്ടോ കഴിച്ചപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഒന്നല്ലെങ്കിൽ ഇന്നലത്തെ ഫുഡ് നിങ്ങൾ മാറി പേക്ക് ചെയ്ത് തന്നു വിട്ടതായിരിക്കും കാരണം അതിനൊരു ചെറിയ സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്താ പറയുക ആകെ ടേസ്റ്റ് ഒക്കെ ഭയങ്കര മോശം അപ്പോൾ കഴിക്കാനും തോന്നിയില്ല അപ്പോൾ ഞങ്ങളത് കളയുകയും ചെയ്തു പിന്നെ ഇതൊന്ന് സംഭവം വിളിച്ചത് ഇത് അങ്ങോട്ട് പറയാൻ വേണ്ടി വിളിച്ചതാണ് ഒന്നല്ലെങ്കിൽ നിങ്ങൾ റീചാർജ് ശേ റീചാർജെന്നെ റീഫണ്ട് ചെയ്തു തരുക അല്ലെങ്കിൽ ആ സംഭവം മാറ്റി തരാനുള്ള പരിപാടി എന്തെങ്കിലും ചെയ്തു തരണം കുറച്ച് ഫുഡ് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സാമ്പിൾ കാണിച്ചു തരാനായിട്ട് ഇനി ഫുള്ളായിട്ട് എടുത്തു വെക്കാനുള്ള ഒരു ഇത് തോന്നിയില്ല